ഹലോ പി കെ ട്രാവൽസല്ലേ ഞാൻ പ്രിയ അങ്കമാലിയിൽ നിന്ന് വിളിക്കുന്നു എനിക്ക് കുടുംബത്തോടൊപ്പം ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ ഒരു വാഹനം വേണമായിരുന്നു ഞങ്ങൾ ഏഴെട്ട് പേർ ഉണ്ടാവും പ്രായമായ ആൾക്കാരുമുണ്ട് അവർക്ക് കൂടെ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനമായിരിക്കണം എല്ലാവർക്കും കൂടെ സുഖമായി ഇരുന്ന് പോകാൻ സൗകര്യമുള്ള വാഹനമായാൽ നന്ന് പിന്നെ വാഹനം ഏ സി ഉള്ളതായിരിക്കണം ഇപ്പോഴത്തെ കാലാവസ്ഥയനുസരിച്ച് ഏ സി ഇല്ലാതെ പറ്റൂലല്ലോ നമ്മുടെ യാത്ര സന്തോഷകരവും ഉല്ലാസകരവുമായി തീരാൻ അത് അത്യാവശ്യവുമാണ് പിന്നെ വാഹനം ഫുൾ കണ്ടീഷനായിരിക്കണം അത് നിർബന്ധമാണ് എന്തെങ്കിലും പ്രോബ്ലം വാഹനത്തിൽ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായാല് അത് നമ്മുടെ സമയത്തെയും നമ്മുടെ സുഖകരമായ യാത്രയേയും ബാധിക്കും അതുകൊണ്ട് ഫുൾ കണ്ടീഷൻ്റെ കാര്യത്തിൽ ഒരു പിഴവും വരരുത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ റെന്റിൻ്റെ കാര്യവും നമുക്ക് വിശദമായിട്ട് പറയണം ഒരു ഇന്നോവ ആയാൽ നന്നായിരുന്നു അതിലാവുമ്പോൾ നമുക്ക് കൂടുതൽ എല്ലാവർക്കും തിരക്കുകൂടാതെ സൗകര്യപ്രദമായി ഇരുന്ന് പോകാമല്ലോ അത് കിട്ടിയാൽ കൂടുതൽ നന്നായിരുന്നു പോകുമ്പോൾ കുറച്ച് ലഗേജും കൂടി വെയ്ക്കാൻ സൗകര്യമുള്ള ഒരു വാഹനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഡേറ്റും കാര്യവുമൊക്കെ അടുത്ത ദിവസം വിളിച്ചു പറയാം ഞങ്ങൾക്ക് വാഹനം അന്നത്തേക്ക് എന്നാണ് വേണ്ടതെന്നോ അല്ലെങ്കിൽ എപ്പഴാന്നൊക്കെ അടുത്തദിവസം വിളിച്ച് പറയാം ഓക്കേ താങ്ക്യൂ